ആദ്യം വീട് ചൂല് കൊണ്ട് തൂത്തുവാരുകയും പിന്നീട് അത് മോപ് കൊണ്ട് തുടക്കുകയുമാണ് ചെയ്യാൻ സാധാരണ പൊതുവെ വീട്ടിൽ ചെയ്യുന്നത് ഇപ്പോൾ പണ്ടത്തെ വീടുകളിൽ നിന്ന് ഒരുപാട് മാറ്റം സംഭവിക്കുകയും ചെയ്തതിനാൽ തറയിൽ ടൈൽ ഉപയോഗിക്കുന്നതിനാൽ തറയിൽ എല്ലാം ടൈൽ ഉപയോഗിക്കുന്നതിനാൽ ചാണകം മെഴുകൽ വളരെ അധികം കുറവാണ് അങ്ങനെ ചാണകം മെഴുകാറുമില്ല എന്നാൽ മുറ്റങ്ങളിൽ ചാണകം ഓരോ വിശേഷ ദിവസങ്ങൾക്ക് ഇടക്കൊക്കെ ചാണകം മെഴുകാറുണ്ട് കാരണം ഇപ്പം അങ്ങനത്തൊരു കടമ്പ ആരും ചെയ്യാറില്ല കാരണം ഒരുപാട് വ്യത്യാസപ്പെട്ട മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പം ചാണകം മെഴുകൽ പൊതുവേ തറ ഇടാത്ത മണി തറയിലൊക്കെയാണ് ആളുകൾ കൂടുതലും ചാണകം മെഴുകാറുള്ളൂ ഇപ്പോൾ കൂടുതലായും വീടുകളിൽ ടൈൽസും തറയും ആയതിനാൽ ചൂലു കൊണ്ട് തൂത്തുവാരുകയും തുടക്കുകയും ആണ് കൂടുതലും ചെയ്യാറുള്ളത് പിന്നെ അതിലുള്ള കാര്യങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചാൽ ആരോ അതിൻ്റെ ആരോഗ്യവശങ്ങൾ പറയുമ്പം കൂടുതലും വൃത്തിയും മറ്റുമായി സൂക്ഷിക്കുന്ന ചാണകമെഴുകിയും എന്നുള്ളതാണ് പണ്ടത്തെ ആളുകൾ പറയുന്നത് എന്നാൽ ഇപ്പോൾ അതൊന്നും ഇല്ല ആദ്യം ജെസ്റ്റൊന്നു തൂക്കുകയും പിന്നീട് അത് തുടക്കുകയും മാത്രമാണ് ആളുകൾ ചെയ്തിട്ടുള്ളത് എന്നാൽ ഇപ്പോഴത് വളരെ കുറവാണ് ചാണകങ്ങൾ മെഴുകിയും എന്നാൽ ഇപ്പോൾ വളരെ അധികം കുറവുള്ളൊരു ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ജെസ്റ്റ് ഒന്ന് തൂത്തുവാരുകയും നമ്മൾ തുടക്കയും മാത്രമാണ് ചെയ്യുക പണ്ടത്തുള്ള പണ്ടുള്ള വീടുകൾ മാത്രമാണ് പണ്ടുള്ള വീടുകൾ മാത്രമാണ് കൂടുതൽ തൂത്തുവാരുകയും മറ്റും ചെയ്യുകയുള്ളൂ എന്നാൽ പണ്ട് മൺതറയിൽ മെഴുകിയ വീടുകൾ മാത്രമാണ് ചാണകം കൊണ്ട് മെഴുകി തൂക്കുകയും മറ്റും ചെയ്തിട്ടുള്ളത് എന്നാൽ ഇപ്പോഴുള്ള വീടുകൾ ഒന്നും ഇതൊന്നും ചെയ്യാറുമില്ല എന്നതാണ് സത്യം തന്നെ കാരണം ഇപ്പോഴത്തെ വീടുകൾ എല്ലാം കൂടുതൽ പുരോഗമിച്ചതും ടയൽസിട്ടതുമായ വീടുകൾ ആണുള്ളത് അതിനാലാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും ആളുകൾ ചെയ്യാത്തത് എന്നാൽ മൺതറയും പഴമയുമുള്ള വീടുകളൊക്കെയാണ് ആളുകൾ ചാണകം കൊണ്ടും മെഴുകയും മറ്റുമാണ് ചെയ്യാറുള്ളത് ഇപ്പോഴത് പൊതുവേ വളരെ കുറവാണ് എന്നാണ് സത്യം അപ്പോൾ ആളുകൾ ജെസ്റ്റ് മുറ്റം വരെ ടൈൽസും മറ്റും കാര്യങ്ങളും ഇടുന്നു എന്നാൽ വീടുകളുള്ള മണ്ണ് മണ്ണുകളിൽ തറയിൽ മെഴുകുകയും മറ്റും ചെയ്യുന്നു കൊണ്ട് ഓരോ വിശേഷ ദിവസമാണവർ കൂടുതൽ ആയിത് ചെയ്യുന്നുള്ളൂ അന്നത്തെ കാലങ്ങളിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വളരെ കുറവാണ് എന്നാൽ ഇപ്പോൾ അണുക്കളും മറ്റും പ്രശ്ണങ്ങളും ഉണ്ടെന്നാണ് പരാമർശമായി കൂടുതൽ പൊതുവേ പരാമർശിക്കപ്പെട്ടിട്ട് ഉള്ളത്